പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് നാല് അഞ്ച് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി നാല് രണ്ട് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അഞ്ച് ആറ് രണ്ടായിരത്തി ഒന്ന്